പഴയ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ വൈദ്യുതി പോയാൽ കറണ്ട് പോയാൽ നമ്മൾ ഇരുട്ടത്ത് പുറത്ത് ഇരിക്കുകയാണ് ചെയ്തിരുന്നത് ഇല്ലെങ്കിൽ പിന്നെ വീടിന് ഉള്ളിൽ നിന്നും പുറത്ത് വന്ന് നിലാവിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത് വിളക്ക് കത്തിച്ച് മണ്ണെണ്ണ വെച്ചിട്ടുള്ള വിളക്ക് കത്തിച്ചിട്ടൊക്കെയാണ് ആളുകൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വൈദ്യുതി മുടങ്ങുമ്പോൾ തന്നെ വെളിച്ചത്തിനുള്ള വെളിച്ചത്തിനുള്ള ഒരുപാട് വഴികളുണ്ട് ഇൻവെർട്ടറുകൾ തന്നെ ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ട് യു പി എസ് യു പി എസ് എന്നാണ് അതിന് പറയുക കൂടുതൽ വീടുകളിലും ഇപ്പോൾ ഇൻവെർട്ടറുകളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഇൻവെർട്ടറുകൽ ഇല്ലാത്ത വീടുകളുമുണ്ട് വൈദ്യുതി മുടങ്ങുന്ന സം സമയത്ത് പിന്നേ കുട്ടികൾ ആണെങ്കിലും കുട്ടികൾക്ക് ആണെങ്കിൽ പരീക്ഷയും സ്കൂളിൽ പോകുന്ന സമയമൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും അവർക്കൊന്നും രാത്രി സമയങ്ങളിൽ കറണ്ട് ഇല്ലെങ്കിൽ പഠിക്കാൻ ഒന്നും പറ്റില്ല ആ സമയത്ത് ഒക്കെ നമ്മൾ എമ്മർ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് പഠിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ തലമുറ എന്ന് പറഞ്ഞാൽ എമർജൻസി ഇൻവെർട്ടറുകൾ അങ്ങനെയുള്ള ഒരുപാട് മൊബൈൽ ഫോണിലൂടെ തന്നെ ടോർച്ച് ഓൺ ആക്കിയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ ഒക്കെ പറ്റും അങ്ങനെയുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഉള്ള ആളുകൾ സ്വീകരിക്കുന്നത്